ഇന്ത്യയിൽ ബോളിവുഡിൽ ഇന്ത്യൻ ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ നൃത്തം വയ്ക്കുന്നത് എനിക്കറിയാവുന്നത് നമുക്ക് റംസാൻ ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അയാളുടെ ഡാൻസ് സ്റ്റെപ്പാണ് നമ്മുടെ ഭീഷ്മ പർവ്വതത്തിൽ കാണുന്നത് അയാൾ ഉണ്ടായിരുന്നു കൊറിയോഗ്രാഫറായിട്ട് നൃത്തം പഠിപ്പിച്ച് കൊടുക്കാനും ഒക്കെ റംസാൻ ആയിരുന്നു മുന്നിൽ എനിക്കറിയുന്നതിൽ അവര് അയാൾ മാത്രം ഉള്ളു ഇനി ഇപ്പോള് സ്വാധീനിക്കുന്ന നൃത്തത്തിലെ ഗാനമെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ അതായിരിക്കും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഇപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഗാനമെന്നു വച്ചാൽ ആവേശത്തിലെ പാട്ടാണ് എല്ലാവരെയും സ്വാധീനിക്കുന്നത് പിന്നെ ടർബോയിലെയും നല്ല നല്ല പാട്ടുകൾ ഉള്ള ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട് അവര് അങ്ങനെയാണ് ബോളിവുഡിലെ ഏറ്റവും കൂടുതൽ റംസാനാണ്